ഹലോ സാറെ ഇത് ബി എസ് എന് എലിന്റെ ഓപ്പീസ് അല്ലേ സാറേ ഞാൻ ഇത് വിളിക്കുന്നത് നമ്മുടെ ഈ മൊബൈലിൻ്റെ ഈ മാസത്തെ മൊത്തം തുകയും എത്രയാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇപ്പം മൊബൈലിന് ഈ മാസമായിട്ട് ഇച്ചിരി ബിൽതുക കൂടിയോ എന്നൊരു സംശയം ഉണ്ട് അപ്പം അതിന് ഒരു ഒരു അതിൻ്റെ ബാലന്സ് ഷീറ്റൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ഈയിടെ ആയിട്ട് ചാർജ് ഇച്ചിരി കൂടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പല പല വിധത്തിലുള്ള ചിലവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ചു കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ശകലം ബില്ല് മൊബൈലിൽ നിന്നാണോ ഏത് രീതി പോയി എന്നറിയാൻ ഏത് മാർഗത്തിലോ മൊബൈൽ ചാർജ് കൂടിപ്പോയി എന്നതിനെ കുറിച്ചു അറിയാൻ വേണ്ടി ചെറിയ ഒരു അടിസ്ഥാനമായ ഒരു വിവരം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഓ സാറേ നമ്പർ ഡവിൾ നയൻ ഡവിൾ സിക്സ് ത്രീ നയൻ ടു ഫോർ വൺ സീറോ ആയിരുന്നു ആ ഓക്കെ സാറേ ആ ഓക്കെ എസ്റ്റിമേറ്റ് എടുത്തിട്ടോ ഓക്കെ സാറെ എത്ര ദിവസം എത്ര ദിവസത്തെ സാവകാശം എടുക്കേണ്ടി വരും ഓക്കെ സാറേ ഈ ഈ ഒരു മാസം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ സോറി സോറി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തെ നമുക്ക് ആ ചീട്ട് കിട്ടിയാൽ മതിയേ മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി മാസത്തെ ആ ഷീറ്റിന് ഷീറ്റ് കിട്ടിയാൽ അത്യാവശ്യം കാര്യങ്ങൾ കാണാം ഏത് ഭാഗത്താണ് നമുക്ക് കൂടുതൽ പൈസ ചിലവാക്കിയതിനേക്കാള് കൂടുതൽ ആയിരുന്നു ഓക്കെ ഓക്കെ താങ്ക് യു സാറെ ഓക്കെ ഓക്കെ